ആ സാർ ഞാൻ വരുന്നത് പൊഴി ആ സാർ ഞാൻ പൊഴിയൂരിൽ നിന്ന് ഒരു പാവപ്പെട്ട മത്സ്യതൊഴിലാളിയാണ് സംസാരിക്കുന്നത് എനിക്കൊരു ഒരു ഫിക്സഡ് അക്കൗണ്ട് വേണമായിരുന്നു

ആ ഞങ്ങളുടെ മേലയിൽ ഞങ്ങളുടെ മേഖലയിൽ ഒരുപാട് മത്സ്യ തൊഴിലാളികൾ ഉണ്ട് അവർക്ക് അവരുടെ പണം നിക്ഷേപിക്കാനായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ബാങ്ക് എന്ന് ഞാൻ പലർ വഴി അറിയുകയുണ്ടായി അതുകൊണ്ടാണ് സാർ ഞാൻ ചോദിച്ചത് തരാമോ നാട്ടിൽ ഉള്ള കുറേ മത്സ്യ തൊഴിലാളികൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതയാത് ഒരു മുപ്പതോളം മത്സ്യ തൊഴിലാളികളുടെ സേവിങ്ങ്സ് ആയ മണി ആണിത് ഈ പൈസ ഈ ബാങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിക്ഷേപിക്കാമല്ലോ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇതേ പ്രൊസീജിയർ എന്താണെന്നും എല്ലാം എനിക്കൊന്ന് പറഞ്ഞ് തരുമോ അപ്പോൾ സാർ ഓക്കെ സാർ സാർ ഈ ഇരുപത്തഞ്ച് മുപ്പത് മത്സ്യ തൊഴിലാളികളും വരണമെന്ന് നിർബന്ധമാണോ അതോ ഞാൻ മാത്രം വന്നാൽ മതിയോ സംശയം ഇരുപത്തഞ്ച് മത്സ്യ തൊഴിലാളികൾ സാർ ഞാൻ പറഞ്ഞ് കഴിഞ്ഞില്ല സാർ ഞാൻ പറഞ്ഞ് കഴിഞ്ഞില്ല സാർ ഇരുപത്തഞ്ച് മത്സ്യ തൊഴിലാളികളും കേരളത്തിൻറെയും ഇന്ത്യയുടെയും പല ഭാഗത്തായിട്ടാണ് മത്സ്യ ബന്ധനത്തിന് പോകുന്നത് അങ്ങനെ അവർ എല്ലാവരും വരണം എന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാവർക്കും കൂടെ ഒരു ദിവസം വരാൻ സാധിക്കില്ല സാർ അപ്പോൾ എല്ലാവരുടെയും ഒരു സമയം അനുസരിച്ചേ വരാൻ പറ്റുള്ളൂ ഈ ബാങ്ക് എല്ലാ ഏതൊക്കെ ദിവസങ്ങളിലാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ആ അഞ്ച് മണി വരെ ഉണ്ടോ സാർ ആ സാർ ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുടെയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ സാർ സാർ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മാസം ഓരോ മാസം കൂടും തോറും അതിൻ്റെ ഇത് പലിശ ഞങ്ങൾക്ക് ലഭിക്കുമോ

ഓ സാർ അപ്പോൾ ഇരുപത്തഞ്ച് പേർക്കും ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം അല്ലേ സാർ ഓ അങ്ങനെയാണല്ലേ സാർ എത്ര വർഷം കഴിയുമ്പോഴാണ് ഈ പൈസ ഡബിൾ ആകുന്നത് അങ്ങനെയാണോ സാർ അപ്പോൾ ഓരോ വർഷം കൂടും തോറും എത്ര രൂപ വെച്ചാണ് കൂടുതൽ ആകുന്നതിൻ്റെ ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു സാർ